ആ ഞാൻ നേരിട്ട് അടുപ്പിൽ ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ പാ നമ്മൾ അടുപ്പിൽ പാചകം ചെയ്യുന്ന സമയത്ത് അതിന്റേതായ ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഗ്യാസിലും അതുപോലെ ഇൻഡക്ഷൻ കുക്കറിലും ഒക്കെയാണ് വെയ്ക്കാറുള്ളത് അപ്പോൾ നോക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ ആ ഒരു വിറകും മറ്റ് നമുക്ക് വെക്കുന്ന വിറകിലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പണിയുണ്ടെന്ന് പറയാം കുറച്ച് എന്താ പറയുക കുറച്ച് നേരം ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ വിറകും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും തീ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തീ അണയുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് അടുപ്പിലുണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് തീർച്ചയായും ഒരു ഗ്യാസിനും ഇൻഡക്ഷൻ കുക്കറിനും ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസം നന്നായിട്ട് ഉണ്ട് അപ്പം ഞാൻ അങ്ങനെയൊരു കറി ഞാൻ ഉണ്ടാക്കി മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടുപ്പിലായിരുന്നു അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായും എനിക്ക് ഒരു ടേസ്റ്റിൽ തന്നെ നല്ലൊരു എന്താ പറയുക എല്ലാം നന്നായിട്ട് ആ ഒരു മസാലകളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്താ നന്നായിട്ട് വഴങ്ങി ആ ഒരു സവാളയുടെ ഒക്കെ ഒരു നന്നായിട്ട് മറ്റ് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു മണം തന്നെയായിരുന്നു അപ്പോൾ അത് തീർച്ചയായും ഒരു വേറെ ഒരു എന്താ പറയുക ടേസ്റ്റ് തന്നെയാണ്